നെയ്ത്തിലും തുന്നലിലും ഭാവിയിൽ നിങ്ങൾ പഠിക്കാനോ പരീഷിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും രീതികളോ ഇതോ ഉണ്ടോ നെയ്ത്ത് ഇതൊന്ന് നമുക്ക് തുന്നൽ നമുക്ക് തയ്യൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് തയ്ക്കാന് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ തയ്യൽ വലുതായിട്ടൊന്നും അറിയില്ല നമുക്ക് ഒരു നമ്മുടെ തനതായ മലയാളത്തനിമയുള്ള ഡ്രസ്സുകൾ തയ്ക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ നമുക്ക് ചുരിദാറുകൾ അങ്ങനെയുള്ള സ്കേട്ടും ബ്ലൗസും അതൊക്കെ തയ്ക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഉണ്ട് പുതിയ രീതി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ട്രെയ്നിങ്ങോ കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിലല്ലേ അങ്ങനെയൊക്കെ നമുക്ക് അത് അതിലേക്ക് ഒക്കെ കടക്കാൻ പറ്റത്തുള്ളു നമ്മൾ അതിനകത്ത് കൂടുതൽ ഇതായിട്ട് നമ്മടെ സാഹചര്യങ്ങളുമൊക്കെ നോക്കി അത് കൊണ്ട് ഞാൻ ഇനി ചെറിയ രീതിയിലൊക്കെ നമ്മുടെ നമ്മുടേത് എന്തെങ്കിലും തയ്ക്കുന്ന ഒരു രീതികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്